വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പെൺകുട്ടികൾക്ക് സൈക്കിളോ ലാപ്ടോപ്പോ നൽകുന്ന ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട് എൻ്റെ സ്കൂളില് ഞാൻ പഠിച്ചിരുന്ന എൻ്റെ ഫ്രണ്ട്സിനും എനിക്ക് കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സൈക്കിള് ലാപ്ടോപ്പ് എന്നിവ നൽകുന്നത് പെൺകുട്ടികളെ പഠനത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് പെൺകുട്ടികളെ എന്തിനാണ് മുന്നോട്ട് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തും പെൺകുട്ടികളെ പഠിപ്പിക്കാതെ ആൺകുട്ടികളെ മാത്രം പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന പല കുടുംബങ്ങളും ഇന്നും ഉണ്ട് പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല അവരെ കല്യാണം കഴിപ്പിച്ചയക്കേണ്ടതാണ് ആൺകുട്ടികളാണ് കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ വരുമാനം അവരെ പഠിപ്പിക്കണം എന്ന ചിന്താഗതിയുള്ള പല രക്ഷിതാക്കളും ഇന്നുമുണ്ട് പക്ഷെ ഒരു പെൺകുട്ടി പഠിക്കുമ്പോൾ അവർക്ക് ലാപ്ടോപ്പ് സൈക്കിള് എന്നിവ ലഭിക്കും എന്നത് കേട്ടിട്ടെങ്കിലും പെൺകുട്ടികളെ പഠിപ്പിക്കാൻ ആ രക്ഷിതാക്കളായിക്കോട്ടെ എന്നൊരു